ഇപ്പോഴത്തെ കാലത്ത് എല്ലാ എല്ലാ എല്ലാ വരുന്ന മേഖലയില് നിന്നുള്ള വാര്ത്തകള് വാ നമുക്ക് വിശ്വസിക്കാന് പറ്റുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ റേഡിയോയില് വരുന്നത് ഒക്കെ നമുക്ക് ഒരു വെച്ചാൾ നമുക്ക് അന്നേരം ഒരു കേട്ടിട്ട് പെട്ടെന്ന് അവർ അതിനെക്കുറിച്ച് വിവരിക്കുന്നതാണ് എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതല് പിന്നെ വരുന്നത് ഈ പത് പത് മൊബൈല് ഫോൺ അത് അവര് അത് പോലെ ത റേഡിയോയും നമ്മള് ഒന്ന് കേൾക്കുമ്പോൾ അവർ നമ്മൾ ഒന്ന് കേൾക്കുമ്പോഴേ അവർ അതിനെ കുറിച്ച് പിന്നെ എക്സ്പ്ലെയിന് ചെയ്യും ഒരു ഒരു രീതിയില് പറഞ്ഞാല് നമ്മള് ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടും എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ല് പോലെയാണ് അതുപോലെയാണ് നമുക്ക് നല്ലോണം വിശ്വസിക്കാന് പറ്റുന്നതെന്ന് വെച്ചാല് പത്രമാണ് കാരണം അവർ നല്ലോണം കാര്യങ്ങളും അതിനാവശ്യമുള്ള പ്രൂഫുകളും ഉണ്ടായിട്ട് മാത്രമേ അവർ അതിലോട്ട് എഴുതി വിടാറുള്ളൂ കാ ഒരു പരിധി വരെ നമുക്ക് അത് വിശ്വസിക്കാം പത്രത്തിൽ പിന്നെ സോഷ്യല് മീഡിയ വരുന്ന വാര്ത്തകള് നമുക്ക് ഒരു പരിധിയില്ലാതെ വരുന്നത് തടയാനും കഴിയില്ല വ്യാജമാണോ നല്ലതാണോ തിരിച്ചറിയാന് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ റേഡിയോയിൽ കേൾക്കുന്നത് നമുക്കത് അത് പറയാന് പറ്റില്ല ഒരു കാരണം ഒരോരുത്തർ പറയുന്നത് ചെറിയ ഒരു ന്യൂസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അപ്പോൾ അത് പറയുകയാണ് ചെയ്യുന്നത് ഇതിനെ കുറിച്ച് അല്ലാതെ വലിയ കാര്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലാതെ അങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാന് എല്ലാം ഉപയോഗിക്കുന്നത് പത്രമാണ് മൊ റേഡിയോ മൊബൈലിനേക്കാളും കാരണം നമുക്ക് ഒരുപാട് വിശ്വസിക്കാനും സാധിക്കും ഏതാണ് നല്ലത് ഏതാണ് വ്യാജം എന്ന് തിരിച്ചറിയാനുള്ളൊരു മാര്ഗ്ഗം നമുക്ക് മനസ്സിലാവും അങ്ങനത്തെ കുറേ കാര്യങ്ങള് ഉണ്ട് മൊബൈല് ഫോണ് വഴി നിന്നും റേഡിയോയില് നിന്നുമാണ് പത്രത്തില് നിന്ന് കിട്ടുന്നത് എനിക്ക് ഒരു വലിയ ഒരു ദോഷമായിട്ടോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പത്രത്തില് നിന്ന് വരുന്നത് പത്രത്തിലും ഇല്ല എന്നല്ല ഞാന് പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് വിശ്വസിക്കാം അത് എവള് എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ പിന്നെ എന്ത് വെച്ചാൾ പറയണം എന്നാല് ഇത് മൂന്നും വെച്ച് നോക്കിയാല് പത്രമാണ് ഏ എന്റെ അഭിപ്രായത്തില് ഏറ്റവും കൂടുതല് ഒരുപാട് വിശ്വസിക്കുകയും നമുക്ക് വിശ്വസിക്കുകയും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യാൻ പറ്റുന്നത് പത്രത്തിലാണ് കാ മൊബൈല് ഫോണും റേഡിയോയിൽ നിന്ന് ഒരു പരിധി വരെ വെച്ച് നോക്കുകയാണെങ്കില്